സ്വച്ഛ് ഭാരത് പദ്ധതി നമ്മുടെ സമൂഹത്തിൽ വന്നപ്പം വിദ്യാർഥികളും സമൂഹത്തിലെ മുൻ പരിഷ്ക്കാര ആൾക്കാരും സാധാരണ ജനങ്ങളും എല്ലാം കൂടി ഒത്തൊരുമയോടു കൂടി നമ്മുടെ റോഡുകളുടെ സൈഡുകളെല്ലാം വൃത്തിയാക്കുകയും അവിടെ കിടക്കുന്ന അഴുക്ക് മാലിന്യങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് നിർമാർജ്ജന സ്ഥലത്ത് മാറ്റി ഇടുകയും ഒക്കെ ചെയ്യുകയും പരിപൂർണ വൃത്തി സംജാതമായ ഒരു രീതിയിലോട്ട് നമ്മുടെ നാടിനെ നയിക്കാനേറ്റവും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമെന്ന നിലയിൽ എല്ലാവരും അതിൻ്റകത്ത് പങ്കാളികളാവുകയും ഒക്കെ ചെയ്യും ഒരു സാഹചര്യമാണ് കഴിഞ്ഞ് പോയത് ഇപ്പോൾ തന്നെയാണെങ്കിലും ഇവിടെ നമ്മുടെ ചുറ്റു വട്ടത്തും ഒക്കെ ഈ കാര്യങ്ങളൊക്കെയും ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഞാൻ പിന്നെ പഠിച്ചു കൊണ്ടിരുന്ന സമയത്തും ഞാൻ ജോലി ഉണ്ടായിരുന്ന സമയത്തും ഗാന്ധി ജയന്തി ദിനത്തിലൊക്കെ ഞങ്ങളുടെ ഓഫീസും പരിസരങ്ങളും റോഡുകളുമൊക്കെ വൃത്തിയാക്കാൻ ഞങ്ങളെല്ലാം കൂടി സഹകരിച്ച് ചെയ്യ് ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പം തന്നെ ആണെങ്കിലും നമ്മുടെ റോഡ് സൈഡുകളിൽ തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും നല്ല വൃത്തി ഉള്ള സാഹചര്യം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലോട്ടെല്ലാം അവരും കടക്കുന്നുണ്ട് എല്ലാവരും അത് ചെയ്യുന്നതിന് ഉള്ള ആ ശുചിത്വ യഞ്ജത്തിൽ പങ്കാളികളാകാൻ നമ്മൾ ഹാർദവ പൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് സങ്കടിച്ച് ഈ ഒരു കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തുന്നു